യു പി എസ് സി മുതലായ മത്സരങ്ങൾക്കും മുതലായ പരീക്ഷകൾ പരീക്ഷ മത്സര പരീക്ഷകൾക്ക് തയ്യാറെെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വാർത്താ മാധ്യമങ്ങൾ ഒത്തിരിയേറെ സഹായം ചെയ്യുന്നുണ്ട് വാർത്തയിലൂടെ പിള്ളേർക്ക് ഈ പഠിപ്പുരയിലൂടെയും എല്ലാം പിള്ളേർക്ക് എന്തുമാത്രം ഒത്തിരി സഹായം അതായത് പഠിപ്പുരയിലൂടെ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരും ഏതൊക്കെ രീതിയിൽ വരും പിള്ളേർക്ക് എങ്ങനെയൊക്കെ ആ ക്സ്റ്റൻ അറ്റൻഡ ചെയ്യാം ആൻസർ അറ്റൻഡ ചെയ്യാം എന്നുള്ള രീതിയിലെല്ലാം ഒത്തിരി സഹായം നൽകുന്നുണ്ട് പിന്നെ ഇപ്പോൾ ആ പഴയതു പോലെയല്ല അന്നൊക്കെ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ പഠപ്പുരയും അങ്ങനെ ഒത്തിരി ഇപ്പോഴുള്ള പിള്ളേരുടെ പോലെ ഒത്തിരി സഹായങ്ങളോ യാതൊരു ഹനം ഇതൊന്നും ഇല്ലായിരുന്നു വാർത്താ വാർത്തകളൊന്നും ഇല്ലായിരുന്നു ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിലൂടെയും മാധ്യമങ്ങളിലൂടെയും പിള്ളേർക്ക് എല്ലാവിധ ചാനലുകളുകളിലൂടെ എല്ലാം ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ട് പണ്ടൊക്കെ എന്നു പറഞ്ഞാൽ പുസ്തകങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിള്ളേർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പുസ്തകം നോക്കി പഠിച്ചാലേ വല്ല്തും ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല അവർക്ക് ഒത്തിരി കാര്യങ്ങൾ അറിവുകൾ പകർന്നെടുക്കാനുള്ള പകർന്നു കിട്ടാനുള്ള എല്ലാവിധ സഹായങ്ങളും ഇപ്പം അവർക്ക് പല വിധത്തിൽ കിട്ടുന്നുണ്ട് പിന്നെ കൊറോണ വന്ന സമയത്താണെങ്കിലും അവർക്ക് യൂട്യൂബിലൂടെയും പിന്നെ മറ്റു പല ചാനലുകളിലൂടെയും മറ്റു പല വാർത്തകളിലൂടെയും മറ്റു പല പിന്നെ ഇതിലൂടെ എല്ലാം പഠിക്കാനുള്ള എല്ലാ വിധ സഹായങ്ങളും യു പി എസ് ഇ അല്ലെങ്കിൽ ഏത് രീതിയിൽ പഠിക്കുന്ന പിള്ളേർക്കാണെങ്കിലും അവർക്ക് ഒത്തിരി സഹായങ്ങൾ ഉള്ളത് കാരണം അവർക്ക് പഠിക്കാനുള്ള എല്ലാ വിധ പ്രോത്സാഹനങ്ങളും പ്രോത്സാഹനങ്ങളും നൽകുന്നുണ്ട് മാധ്യമങ്ങൾ പിന്നെ പിള്ളേർക്ക് ഓരോ ചാനലുകളിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ എടുത്താലും ഈ യൂട്യൂബ് ചാനലിൽ തന്നെ പിള്ളേർക്ക് ഓരോരോ സാറന്മാർ പ്രത്യേകം പ്രത്യേകം ഓരോ യൂട്യൂബ് തുറന്നു നോക്കുമ്പഴത്തേക്കും ഓരോരുത്തനും പ്രത്യേകം പ്രത്യേകം അവർക്ക് വേണ്ടിയിട്ടുള്ള എങ്ങനെയൊക്കെ രീതിയിൽ ഒരു രീതിയിലായിരിക്കും ഒരാൾ പഠിപ്പിക്കുന്നത് അപ്പഴ് അടുത്ത് വേറെ യൂട്യൂബിൽ നമ്മള് വേറൊരാളുടെ ഇത് സബ്സ്ക്രൈബ് ചെയ്തു കയറി നോക്കുകയാണെങ്കിൽ

നമുക്ക് അറി അറിവ് പകർന്നു കൊടുക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഇപ്പോഴുള്ള ഇപ്പോഴുള്ളവർക്ക് എക്സാം എഴുതുന്നവർക്കുണ്ട് വിദ്യാർഥികൾക്ക് ഉണ്ട് പിന്നെ അവർക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് കൂടാതെ അതായത് ക്ലാസ് ഇതിന് വേണ്ടിയിട്ട് പിള്ളേർ പഠിക്കാൻ പോകുന്നുണ്ട് ക്ലാസ് അറ്റൻഡ ചെയ്യാൻ പോകുന്നുണ്ട് പൈസ ഇല്ലാത്തവരാണെങ്കിൽ വീട്ടിൽ ഇരുന്നാൽ മതി അവർക്ക് അത് പഠിക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഉണ്ട് അത് കാരണം അവർക്ക് ഒരു ബുദ്ധിമുട്ടും വരുത്താതെ അവർക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട് വാർത്താ മാധ്യമങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പേപ്പർ എടുത്താലും ദീപിക എടുത്താലും മനോരമ എടുത്താലും ഏത് പേപ്പർ എടുത്താൽ അതിലെല്ലാം ഉണ്ട് പിന്നെ മനോരമയിൽ പഠിപ്പുരയുണ്ട് പഠിപ്പുര എടുത്ത് നോക്കുമ്പോൾ തന്നെ അതിനകത്ത് എങ്ങനെയൊക്കെയാണ് നമ്മളുടെ എക്സാം അറ്റെൻഡ ചെയ്യേണ്ടത് കാര്യങ്ങൾ എന്നുള്ളത് എല്ലാം അതിൽ തന്നെയുണ്ട് പിള്ളേർക്ക് പിന്നെ പഠിച്ചാൽ പഠിക്കാനുള്ള ഉത്സാഹം ഉണ്ടായാൽ മാത്രം മതി അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും പിന്നെ പഠിക്കാൻ ഉത്സാഹം ഉണ്ടാകണം ഉത്സാഹം ഉണ്ടായാൻ മാത്രമേ അതിൽ നിന്നവർക്ക് മുക്തി നേടാൻ പറ്റള്ളു അവർക്ക് ജയിക്കണമെന്ന് ആഗ്രഹം എനിക്ക് ജയിക്കണം എനിക്ക് പരീക്ഷയിൽ വിജയിക്കണം എന്നുള്ള ഒരു തോന്നൽ പിള്ളേർക്ക് സ്വയം ഉണ്ടാകണം അതിന് വേണ്ടിയിട്ടുള്ള പിള്ളേർക്ക് ഇപ്പോഴാണെങ്കിലും കൗൺസിലിങ്ങും കാര്യങ്ങളും അതെല്ലാം ഉണ്ട് പിള്ളേർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ വിധ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നു അത് പിന്നെ പിള്ളേർക്ക് ഇത് പരസ്പരം വാർത്തകൾ മാധ്യമങ്ങൾ മാധ്യമങ്ങൾ എങ്ങനെ ഈ പല വിധത്തിലുള്ള സഹായങ്ങളാണ് മാധ്യമങ്ങളിലൂടെ പിള്ളേർക്ക് കിട്ടുന്നത് അത് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലാണ് അവരുടെ സഹായം നമുക്കുള്ളത് പിന്നെ വാർത്ത വാർത്തയുണ്ട് ടി വി വാർത്തയിലൂടെയും ടിവിയിൽ അതിന് പ്രത്യേകിച്ചൊരു ഇതുണ്ട് അത് തന്നെ നമ്മളെടുത്ത് നോക്കിയാൽ മതി നമുക്ക് അറിയാൻ പറ്റും പിന്നെ എങ്ങനെ നമുക്ക് അതിനെക്കുറിച്ചുള്ള അറിവ് നേടണമെങ്കിൽ നമ്മൾ കൂടുതലും പേപ്പറ് വരുന്ന എന്നും വരുന്ന പേപ്പറുകൾ നമ്മൾ വായിക്കുക വായിക്കുക വായിച്ചു കഴിയുമ്പോൾ തന്നെ അതം ഏകദേശമൊക്കെ നമുക്ക് ചെയ്യാനുള്ള ഒരു ഊഹം കിട്ടും ആ ഊഹം കിട്ടുമ്പോഴത്തേക്കും പക്ഷേ എല്ലാ ദിവസവും നമ്മൾ വായിക്കണം ഇത് പഠിക്കുന്ന യു പി എസ് സി മുതലായ മത്സരങ്ങളിൽ പിന്നെ പരീക്ഷകളിൽ എഴുതണോ തയ്യാറാവുന്ന പിള്ളേർ ദിവസവും പത്രം വായിക്കുക പത്രം വായിച്ചു അതിലൂടെ അവർക്ക് അറിവ് പകരാനുള്ള എല്ലാവിധ ഇതും കിട്ടും പിന്നെ പിന്നെ അവർ ഇത് മാധ്യങ്ങളെ മാധ്യമങ്ങളെ മാത്രം ആശ്രയിച്ചിരിക്കരുത് അവർക്ക് പിന്നെ ഇത് മാധ്യമങ്ങൾ ആണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതെന്ന് പറയുന്നത് മാധ്യമങ്ങളാണ് മാധ്യമത്തിലൂടെ തന്നെയാണ് പിള്ളേർക്ക് അറിവുകൾ പകർന്നു കിട്ടുന്നത് പിന്നെ അവർ ദീപിക പേപ്പറ് ദീപിക പേപ്പർ മനോരമ പേപ്പറുണ്ട് പിന്നെ ദേശാഭിമാനി അങ്ങനെ ടൈംസ് ഓഫ് ഇന്ത്യ അങ്ങനെ എന്ത് ഇന്ത്യ റ്റൂടെ അങ്ങനെ ഒത്തിരി പേപ്പറുകൾ ഏത് ഭാഷയിൽ വേണമെങ്കിലും നമുക്ക് വായിച്ചു പഠിക്കാൻ ഏത് ഭാഷയിൽ വേണമെങ്കിലും വായിച്ചു പഠിക്കാനുള്ള എല്ലാ വിധ സജ്ജീകരണങ്ങളും ഉണ്ട് അത് കാരണം അവർക്ക് ഈസി ആയിട്ട് പിന്നെ മത്സരങ്ങളാണ് മത്സരങ്ങളായതുകൊണ്ട് നമുക്ക് ഇത് റാങ്ക് ലിസ്റ്റ് കയറുന്നത് അനുസരിച്ചല്ലേ നമുക്ക് ജോലിക്ക് പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ പക്ഷേ എക്സാം പരമാവധി നമുക്ക് മാധ്യമങ്ങളിലൂടെ വാർത്താ മാധ്യമങ്ങളിലൂടെ നമുക്ക് പരമാവധി അതൊരു ഉപയോഗപ്രദമാക്കി എടുക്കാൻ സാധിക്കും അതിന് വേണ്ടിയിട്ട് ഈ പഠിക്കുന്നവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഉത്സാഹം വേണം അല്ലാതെ അല്ലാതെ നമുക്കൊന്നും എഴുതി ഒരു കാര്യത്തിൽ എഴുതി ജയിക്കാനോ ഒരു കാര്യത്തിലും നമുക്ക് അതിൽ നിന്ന് മുക്തി നേടാൻ പറ്റത്തില്ല നമ്മൾ മത്സരമാണ് മത്സരം എപ്പോഴും ഇപ്പോഴുള്ള നല്ല വിദ്യാഭ്യാസവും നല്ല അറിവുമുള്ള മനുഷ്യരാണ് അതനുസരിച്ചു അവരോടൊപ്പം നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ മാധ്യമങ്ങളെ ആശ്രയിക്കണം കുറച്ചൊക്കെ ആശ്രയിച്ചു വേണം നമ്മുടെ കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകാൻ പിന്നെ എല്ലാ വിധ സഹായങ്ങളും നമുക്ക് അറിവ് പകരാനുള്ള എല്ലാ വിധ സഹായങ്ങളും നമുക്ക് മാധ്യമങ്ങളിലൂടെ കിട്ടുന്നുണ്ട് അതാണ് പ്രധാനമായിട്ടുള്ളത് ഇത് ആകുന്നില്ല ഓടിക്കോണ്ടിരിക്കുന്നേ ഉള്ളൂ